ദീർഘദൂ യൂര ദീർഘദൂര യാത്രകൾക്ക് ബൈക്ക് തിരഞ്ഞെടുക്കുന്നതിനോടുള്ള എൻ്റെ അഭിപ്രായം ആദ്യം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ദീർഘദൂര യാത്രകൾ പൊതുവേ ബൈക്ക് അഥവാ ഇരുചക്ര വാഹനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ ഓരോ മ വ്യക്തിയുടെയും സാഹചര്യങ്ങൾ വിഭിന്നമാണ് നമുക്ക് അറിയാം ദീർഘ യാത്രകൾ ആണെങ്കിലും ചെറിയ യാത്രകൾ ആണെങ്കിലും നമുക്ക് ലഭ്യമായ വാഹനം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് തരം വാഹനം നമുക്ക് ലഭ്യമാകും എന്നുള്ളതും നമ്മുടെ സാഹചര്യത്തിൽ ആശ്രയിച്ചിരിക്കും കാരണം എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും നാല് ചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് അല്ല അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് കാർ ഉപയോഗിച്ചിട്ടുള്ള യാത്ര സാധ്യമാകുമെന്ന് തോന്നുന്നില്ല സാമ്പത്തിക രീതിയും പണത്തെ നമ്മുടെ സാധ്യതകളും നമ്മുടെ അതെല്ലാം ഇതിൽ ബാധകമാണ് അപ്പം ദീർഘദൂര യാത്രയ്ക്ക് ബൈക്ക് തിരഞ്ഞെടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നാല് ചക്ര വാഹനത്തിൽ പോകാനുള്ള സാഹചര്യം ലഭ്യമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാനാണ് ഞാൻ പ്രഥമമായി രേഖപ്പെടുത്തുന്ന എൻ്റെ അഭിപ്രായം ഇനി വേറെ നമുക്ക് നിർവാഹമില്ല നമുക്ക് ദീർഘദൂര ഒരു യാത്ര പോണം നമുക്ക് ലഭ്യമായ ഒരു വാഹനം ബൈക്ക് മാത്രമാണ് നമുക്കൊരു ബസ് തുടങ്ങിയവ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ സമയത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടെല്ലാം വളരെ വിഭിന്നമാണ് അല്ലെങ്കിൽ ദുഷ്കരമാണ് എങ്കിൽ ബൈക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ എങ്കിൽ നമ്മൾ അല്ല വേറെ സാധ്യതകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിൽ ദീർഘദൂര യാത്രകൾക്ക് നമുക്ക് ബൈക്കിന് പോകണം എന്നൊരു സാഹചര്യം അനിവാര്യമായി നിൽക്കുകയാണ് എന്നോ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആരോഗ്യം നിലനിർത്താൻ ബൈക്ക് യാത്രകളിൽ എങ്ങനെ ആരോഗ്യം നിലനിർത്താം അതിനെപ്പറ്റി സംസാരിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്താം അത്തരം സാഹചര്യങ്ങളിൽ ബൈക്ക് എടുക്കുമ്പം പ്രത്യേകം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ആരോഗ്യത്തിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വാഹനം നമ്മുടെ കൂടെ സാഹചര്യ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മളെ കൊണ്ടുപോകുന്ന ഒരാളാണ് അല്ലെങ്കിലെന്താണ് നമ്മുടെ ഒരു സന്തതസഹചാരിയാണ് അപ്പം നമ്മുടെ ആരോഗ്യത്തിനേക്കാൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ബൈക്കിൻ്റെ ആരോഗ്യം അഥവാ ബൈക്കിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ബൈക്ക് ബൈക്ക് എങ്ങനെ ആണ് ഈ ബൈക്ക് ഓക്കെ ഇത്ര ദൂരം പോകാനുള്ള സാഹചര്യം ഈ ബൈക്കിലുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഓക്കെ ആണോ അതിൻ്റെ എൻജിനിൽ ആ ഓയിൽ ഉണ്ടോ നമുക്ക് ദൂരെയാത്ര പൂർത്തിയാക്കാൻ സാധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ടയർ ടയർ ഭാഗമാണെങ്കിലും അതിൽ ആവശ്യത്തിന് എയർ ഉണ്ടോ എന്ന് ചെ പരിശോധിക്കണം അതുപോലെ എൻജിനിൽ ആവശ്യത്തിന് ഓയിൽ ഉണ്ടോ ദീർദൂത്ര ദീർഘദൂര യാത്രകൾക്ക് അത് കണ്ടീഷൻ ആണോ അതുപോലെ ടയർ അത്ര ദൂര യാത്ര ചെയ്യാനുള്ളത് ഓക്കെ ആണോ ബ്രേക്ക് കാര്യങ്ങൾ ക്ലച്ച് അങ്ങനെ ബൈക്കിൻ്റെ എ ടു ഇസഡ് ഭാഗം ഒന്ന് ഭ് ഒരു ഒരു മെക്കാനിക്കിനെ കാണിച്ചൊന്ന് ഓക്കെ ആക്കി വെച്ചതിനുശേഷം ദീർഘദൂരമായിട്ടുള്ള യാത്ര പോവാണെങ്കിൽ അത് ആരംഭിക്കാൻ ശ്രദ്ധിക്കുക ഇനി അത്ത ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ദയിൽ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയാം ഇന്നത്തെ ഇന്ത്യൻ റോഡുകൾ കേരളം എന്ന് ഞാൻ പറയില്ല ഇന്ത്യൻ റോഡുകളിൽ അതിലെ കാലാവസ്ഥ ഒന്നുകിൽ മഴ ആയിരിക്കും അല്ലെങ്കിൽ നല്ല വെയിൽ ആയിരിക്കും അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇനി വെയിലിനെ പറ്റി സംസാരിക്കാം വെയിൽ ആണെങ്കിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വേഷം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വെയിലിൽ നിന്ന് രക്ഷ നേടാനാണ് ഉള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ പറയുന്നത് ഇനി മഴ ആണെങ്കിൽ ആ മഴയെ അതിജീവിക്കാൻ നമ്മുടെ നമ്മൾ പ്രഥമമായി നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ലല്ലോ അതാണ് ഞാൻ പറയാത്തത് ഇനി മഴക്കാലം ആയിക്കോട്ടെ വേനൽക്കാലം ആയിക്കോട്ടെ കാരണം നമ്മുടെ ഹെൽമെറ്റിന് ഒരു ഗ്ലാസ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി ഇല്ലെങ്കിൽ നമുക്ക് സൊ മഴയെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കണ്ണാടി നമ്മൾ വയ്ക്കുക ഇനി വെയിൽ എങ്കിൽ പൊടിപടലങ്ങൾ ബാക്കി അതിൻ്റെ ഒക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അതിനെ അതിജീവിക്കാൻ മാത്രം ഒരു കണ്ണാടി നമ്മൾ വയ്ക്കുക അല്ലെങ്കിൽ സൂര്യൻ്റെ താപത്തെ വെയിലിനെ അതിജീവിക്കാനുള്ള സൺഗ്ലാസ് പോലെയുള്ള സാഹചര്യങ്ങൾ വയ്ക്കുക പിന്നെ നമ്മൾ ധരിക്കുന്ന ഹെൽമെറ്റ് ഫുൾ ഫേസ് ആയിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു അപകടത്തിൽ നമ്മുടെ താടിയെല്ല് തലയുടെ പിൻഭാഗം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ മുഖം താടിയെല്ല് എല്ലാം അപ്പം ഹെൽമെറ്റ് നമ്മുടെ മുഖം മുഴുവൻ അല്ലെങ്കിൽ താടി മുഴുവൻ തല മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് നമ്മൾ ധരിക്കേണ്ടത് വസ്ത്രവിധാനത്തിൽ നമുക്കൊരു അപകടമുണ്ടായാൽ അതിൽ അധികം പരിക്കില്ലാതെ വരുന്ന സേഫ്റ്റി റൈഡിങ്ങ് ഗിയർ ഗിയറുകൾ എന്നാണ് അതിന് പറയുന്നത് അതായത് നമ്മുടെ മുട്ടിന് കൈമുട്ടിന് കാൽമുട്ടിനെല്ലാം പ്രൊട്ടക്ഷൻ തരുന്നത് തൊട്ട് വേഷവിധാനങ്ങൾ നമുക്ക് ഇന്ന് ധാരാളമായി മാർക്കറ്റിൽ ലഭിക്കും അപ്പം അത്തരം വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വീകരിക്കുക പിന്നെ നമ്മൾ ധരിക്കുന്ന പാദരക്ഷകൾ ഏറ്റവും നമ്മളൊരു ബൈക്ക് യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഷൂ ധരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ ബ ഷൂ ധരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ ഒക്കെ പരിക്കിനെ അതിജീവിക്കാൻ ഷൂ ഏറ്റവും ഇതായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഷൂ ധരിക്കാനുള്ള ചപ്പൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദീർഘദൂര യാത്രകൾ പോകുമ്പം നമ്മളൊരു നാൽപതോ അമ്പതോ കിലോമീറ്ററിനുള്ളിൽ വാഹനം ഒന്ന് നിർത്തി വയ്ക്കുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ ഒത് ഒന്നല്ലെങ്കിൽ ഒന്നര മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി യാത്ര ചെയ്യാതിരിക്കുക അതിനുശേഷം അൽപം വിശ്രമിക്കുക ദാഹം ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കാ കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ നീർജലീകരണം ഉണ്ടാകാതിരിക്കാൻ വെള്ളം അനിവാര്യമാണ് അപ്പം അത് ആ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ഇത്തരം യാത്രകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തുമ്പം വയറുനിറ നിറയുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് കടക്കുവാണ് പ്രത്യേകമായിട്ട് മൈദ കലർന്ന ഭക്ഷണം അവ ധാരാളമായിട്ട് ചോറ് ചോറ് കഴിക്കുന്നെങ്കിൽ വയർ നിറച്ച് കഴിക്കുക അതുപോലെ തന്നെ ബിരിയാണി ഈ ഇത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ഉറക്കത്തിന് സാധ്യതകളുണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദാഹം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെ ഏകാഗ്രതയും ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ബാധിക്കും അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക ഇനിയിപ്പം ബ്രേക്ഫാസ്റ്റ് ആണെങ്കിൽ അപ്പം തുടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ചപ്പാത്തി തുടങ്ങിയവ അല്ലെങ്കിൽ മസാലദോശ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ക്ഷീണം ഒരു പരിധി വരെ അകറ്റാനും നമ്മുടെ ദാഹം അമിതമായ ദാഹം ഉണ്ടാകാതിരിക്കാനും ഉറക്കത്തിൻ്റെ പ് പ്രശ്നത്തെ അതിജീവിക്കാനും നമുക്ക് അതുവഴി സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനമായിട്ട് അതാണ് ഭക്ഷണരീതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് യാത്രയിൽ എന്തെങ്കിലും ഉറക്കത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തലവേദനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അൽപ്പം കാപ്പി കുടിക്കുന്നതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് എൻറെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നടുവേദന തോൾവിടവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീർഘദൂര യാത്രകളിൽ എല്ലാ മനുഷ്യരെയും അതിപ്പോൾ ഏത് ബൈക്ക് തന്നെ ആയികൊള്ളട്ടെ എല്ലാ മനുഷ്യനും പ്രത്യേകിച്ച് ഏത് ബൈക്ക് തന്നെ ആയിക്കൊള്ളട്ടെ ബൈക്കിന് വരുന്ന ആളിന് നടുവിന് അല്ലെങ്കിൽ തോളിനുണ്ടാവുന്ന ഒരു വേദന അപ്പോൾ ആ മായാതിനെ അതിജീവിക്കാനുള്ള ഒരു ഉപാധി എന്നതിനുള്ള നമുക്ക് ആദ്യം പറയുന്നത് പോലെ നമ്മൾ നാൽപ്പത് കിലോമീറ്റർ ഒരു മണിക്കൂറോ കൂടുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒരു പതിനഞ്ച് മിനിറ്റ് വിശ്രമിക്കുകയാണെങ്കിൽ ആ വേദനയെ ഒരു പരിധി വരെ എന്നല്ല നമുക്ക് എങ്കിലും വേദന അനുഭവപ്പെടും ആ നാൽപ്പതാം മി മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ആകാനുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നാൽപ്പത് കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് വേദന തുടങ്ങുന്നത് അപ്പം അത് നമ്മുടെ റോഡുകളുടെ ഒരു പ്രശ്നങ്ങൾ കൂടെയാണ് അതിന് നമുക്കായിട്ട് പ്രതിവിധി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടരെത്തുടരെ ഉള്ള ദൂ ദൂരയാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ സസ്പെൻഷൻ അതായത് ഷോക്ക് അബ്സോർബർ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ കോൺ സെറ്റ് തുടങ്ങിയ ആ ഭാഗങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നടുവേദന കുറയ്ക്കാം എന്നാലും ബൈക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സന്തതസഹചാരികളാണ് ഈ വേദനകൾ അപ്പം അതിൽ നിന്നൊരു രക്ഷ എന്ന് പറയുകയാണെങ്കിൽ ബൈക്ക് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് നടുവിന് അധികം ആയാസമില്ലാത്ത അല്ലെങ്കിൽ നല്ല ജെല്ലി ആയിട്ടുള്ള സീറ്റ് കവർ അല്ലെങ്കിൽ സീറ്റ് ആ രീതിയിലേക്ക് കസ്റ്റം ചെയ്യാൻ ശ്രദ്ധിക്കുക അത്തരം അതുപോലെ നമ്മുടെ ടയർ നമ്മുടെ വണ്ടിയുടെ ട നമ്മുടെ ടയറുകളിലുള്ള ആ വായു എയർ എയറിൻ്റെ അളവ് അനുയോജ്യമാം വിധമാണോ എന്ന് ചോദിക്കുക അത് നമുക്ക് ചാട്ടം കുറച്ച് നടുവിനുള്ള പിടുത്തത്തെ ഒരു പരിധിവരെ കുറയ്ക്കും അപ്പം ദീർഘദൂര യാത്രകളിലെ ആരോഗ്യം അല്ലെങ്കിൽ ദീർഘദൂര യാത്രകളിൽ ഇരുചക്ര വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എത്തിയെന്ന് വിശ്വസിക്കുന്നു ഇത്തരം കാര്യങ്ങളെപ്പറ്റി ല് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കൃതജ്ഞതയും ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി